ഞാനിപ്പോഴൊരു വീട് എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ കുറ്റിയിട്ട് തറപ്പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ കുറച്ച് കുറച്ചുനാളായി പണി അവിടെ നിന്നിട്ട് അപ്പോൾ എനിക്കിപ്പോൾ ഏറ്റവും വലിയ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ അതിൻ്റെ പണി തുടങ്ങി അതൊന്നു പൂർത്തിയായി ആ വീട്ടിൽ കയറി താമസിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ എൻ്റെ ഏറ്റവും വലിയ ഒര് ആഗ്രഹം ഞാനിപ്പോൾ താമസിക്കുന്നത് ഒരു പഴയ പണ്ടത്തെ ഒരു ചെറിയൊരു തറവാട് വീട്ടിലാണ് ആ തറവാട് വീടെന്നു പറയുമ്പോൾ പണ്ടത്തെ വീട് അറിയാമല്ലോ ഓടൊക്കെ ഇട്ടിട്ടുള്ളൊരു വീടാണ് അപ്പോൾ അവിടെ താമസിക്കുമ്പോൾ ബുദ്ധിമുട്ട് ഉണ്ടായിട്ടെന്നല്ല പക്ഷെ എന്റെയൊരു ആഗ്രഹമായിരുന്നു ഒരു ചെറിയ ഒരു വാർപ്പിൻ്റെ വീട് വേണം എന്നുള്ളത് എൻ്റെ ഒരാഗ്രഹമാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിൻ്റെ പണി ഇപ്പോൾ തുടങ്ങിയതേയുള്ളൂ ഇനി അതെനിക്ക് പൂർത്തിയാക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ട് അതിന് വേണ്ടി ചിലവുകള് അതിനൊക്കെ പൈസ ഒരുപാട് കണ്ടെത്തണം അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങള് പിന്നെ എനിക്ക് ഇപ്പോൾ ഞാൻ നിൽക്കുന്ന വീട്ടില് എന്നു പറഞ്ഞാല് ഓടിട്ട വീടാണ് അപ്പോൾ ഓടിട്ട വീട് അവിടവിടെ പൊട്ടിയിട്ടുള്ള ഇടയ്ക്ക്നിന്നൊക്കെ മഴക്കാലമൊക്കെ വരുന്ന സമയത്ത് മഴവെള്ളം ഇങ്ങ് നമ്മുടെ അകത്തെത്തും അപ്പോൾ ഈ ഓടിട്ട വീടിൻ്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ഇതായിരിക്കും ഒരുപാട് കാലങ്ങള് എത്തുന്ന സമയത്ത് ഈ ഓട് പൊട്ടി അതിൽനിന്ന് വെള്ളം വരുമല്ലോ മഴക്കാലത്ത് വെള്ളം അടിയിലെത്തും അപ്പോൾ നമ്മൾ ഈ മഴക്കാലത്തൊക്കെ വെള്ളം ബക്കറ്റും പാത്രവും ഒക്കെ അകത്ത് ഓരോരോ മൂലയ്ക്ക് ഈ വെള്ളം വരുന്ന ഓരോരോ ഭാഗത്ത് വെച്ചിട്ട് വേണം രാത്രി കിടന്നുറങ്ങാനും മഴക്കാലത്തെക്കെ എപ്പോഴും ഇങ്ങനെ അവിടെ ഇവിടെയും പാത്രങ്ങളും ബക്കറ്റുകളും ഒക്കെ വച്ചിട്ടാണ് ഉണ്ടാവുക അപ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ലയെന്നുള്ളതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് തന്നെ ഒരു വീട് വേണമെന്നുണ്ട് ഇനി അടുത്ത ഒരു മഴക്കാലം വരുമ്പോഴത്തേക്കും വീടിൻ്റെ പണി കഴിഞ്ഞെങ്കിൽത്തന്നെ ഭയങ്കര ഒര് സന്തോഷമായിരുന്നു അപ്പോൾ അത് തന്നെയാണ് ഇപ്പോൾ ഏറ്റവും വലിയ ഒരാഗ്രഹം ആ വീടിൻ്റെ പണി തീർക്കണം അവിടെ കയറിക്കൂടണം അതുതന്നെയാണ് ഇപ്പോൾ ഏറ്റവും വലിയ ഒരാഗ്രഹം ഈ വീട്ടില് ഇതെൻ്റെ അപ്പൂപ്പൻ അപ്പൂപ്പന്മാരുടെ കാലത്തുള്ള വീടാണ് അവര് എടുത്തിട്ടുള്ള വീടാണ് അപ്പോൾ അതിൻ്റെ തന്നെ ഒരുപാട് പഴക്കമുണ്ട് നമ്മളിപ്പോൾ താമസിക്കുമ്പോൾതന്നെ ഒരുപാട് വർഷത്തെ പഴക്കമുണ്ട് അപ്പോൾ ഇതിൻ്റെ എത്ര കാലം ഇനി ഇതുണ്ടാകുമെന്നുള്ളത് നമ്മൾക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ടുതന്നെ പെട്ടെന്നുതന്നെ നമ്മള് വേറൊരു വീട് എടുത്ത് അങ്ങോട്ടേയ്ക്ക് മാറിയില്ലെങ്കിൽ ഏത് ഏതു സമയത്താണ് ഇത് പെട്ടെന്ന് ഇടിഞ്ഞ് പൊളിഞ്ഞ് വീഴുക എന്ന് പറയാൻ പറ്റില്ല അത്രയും പഴക്കമുള്ളൊരു വീടാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ മാറണം എന്നുള്ളതാണ് അതുകൊണ്ട് ഇപ്പോൾ വീടെടുക്കലാന്ന് ഏറ്റവും വലിയൊര് ലക്ഷ്യം എന്ന് പറയുന്നത്